ഇന്ത്യയിലെ ഗതാഗത സംവിധാനങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയില് പ്രധാനമായും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ട്രെയിനിനെയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ഗവൺമെന്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതും റെയിൽവേയുമായി ബന്ധപ്പെട്ട തൊഴിലിടങ്ങളിലാണ് ഈ രാജ്യത്തെ ജനങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഗതാഗത മാർഗ്ഗങ്ങൾ പ്രൈവറ്റ് ബസ്സുകൾ ട്രെയിൻ പിന്നെ പ്രൈവറ്റ് വാഹനങ്ങൾ ഗവൺമെന്റ് വാഹനങ്ങൾ എന്നീ മാർഗ്ഗങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ കൂടുതലായും ഗവൺമെന്റ് വാഹനങ്ങളെ അല്ലെങ്കിൽ പബ്ലിക് വാഹനങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരും അവരുടേതായ വാഹനങ്ങൾ നിരത്തിലിറക്കുമ്പോൾ കൂടുതലായും നമ്മുടെ നാട്ടിൽ ഒരു ട്രാഫിക് ബ്ലോക്കിനും ട്രാഫിക് ജാമിനും ഇടയാക്കുന്നുണ്ട് ഇപ്പോൾ മുംബൈ പോലുള്ള ടൗണുകളിൽ അവരുടെ ജീവിതത്തിൻ്റെ നാലിൽ ഒരു ഒരു ഭാഗവും അവർ ട്രാഫിക്കലായി നിൽക്കുകയുണ്ടായി അതിപ്പോൾ മുംബൈ പോലെ ടൗൺ മാത്രമല്ല കൊൽക്കത്ത കേരളത്തിലെ കാര്യം എടുത്താൽ കൊച്ചി ട്രിവാൻഡ്രം എന്നീ തുടങ്ങിയ സിറ്റികളിൽ ട്രാഫിക് ബ്ലോക്കിൻ്റെ

മുൻഗണന അവിടുത്തെ ജീവി ജനങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിലെ കൂടുതൽ ജനങ്ങളും ഒരു സോഷ്യൽ അല്ലെങ്കിൽ സർക്കാർ വാഹനങ്ങള് പബ്ലിക് വാഹനങ്ങളെ ആശ്രയിക്കുകയാണെങ്കില് നിരത്തിലിറങ്ങുന്ന വണ്ടികളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയാണ് ഇതിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ട്രാഫിക് ജാമിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നുണ്ട് ട്രാഫിക് ജാമാണ് യാത്ര ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിൽ ഒന്ന് പിന്നെ നമ്മുടെ നാട്ടിൽ റോഡ് സംവിധാനങ്ങളുടെ ഒരു പോരായ്മ നമ്മൾ എടുത്തേ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കൂടുതലായും നല്ല റോഡുകളുടെ അഭാവം അതു കൂടുതലായി ആക്സിഡൻസിനും നമ്മുടെ നാട്ടിൽ ഇടവരുത്തുന്നുണ്ട് ഇന്ത്യയിൽ വർഷം ഒരു ലക്ഷത്തിലധികം ജനങ്ങള് ആക്സിഡന്റ് മൂലം മരിക്കുന്നുണ്ട് പ്രധാനമായിട്ടും റോഡ് അപകടങ്ങള് റോഡ് മുറിച്ച് കടക്കുമ്പോൾ കൃത്യമായ വേഗത നിയന്ത്രിക്കാത്തതുകൊണ്ട് കൃത്യമായ റോഡുപണി നടത്താത്തതുകൊണ്ട് സൈൻ ബോർഡ് ആവശ്യമായ രീതിയിൽ വയ്ക്കാത്തതുകൊണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ ഗതാഗത മാർഗ്ഗങ്ങളെ ആശ്രയിക്കുന്നതിൻ്റെയും അല്ലാത്തതിൻ്റെയും ഫലമായിട്ട് മരിച്ചു വീഴുന്നുണ്ട് ഇന്ത്യയിലെ ഗതാഗത മാർഗ്ഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആദ്യം ഇവിടുത്തെ ഗവൺമെന്റ് അതിന് മുൻകൈയെടുക്കുകയും അതിനു വേണ്ടി ഒരു സർവ്വേ നടത്തുകയും എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകളും റോഡിന്റെ ക്വാളിറ്റിയിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മള് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് റോഡ് പണിയാൻ കൊടുക്കുമ്പോൾ അതു പണിയുന്ന കോൺട്രാക്ടർക്ക് അതൊരു ഇത്ര വർഷത്തേക്ക് കൂടി അതിന്റെ മൈന്റനൻസ് വർക്കിന്റെ ഒരു കരാറ് നമ്മുടെ ഗവൺമെന്റ് നൽകേണ്ടതായിട്ടുണ്ട് ഒരു റോഡ് പണിതീർത്താൽ അതിൽ നിന്ന് ഒരു പതിനഞ്ചോ ഇരുവതോ വർഷം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം എങ്കിലും ആ റോഡ് പണിത് അതിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സാഹചര്യത്തിൽ അത് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അതിൽ പണം മുടക്കാതെ ഏത് കമ്പനിയാണോ ഏത് കോൺട്രാക്ടറാണോ ആ റോഡ് പണി നടത്തിയിട്ടുള്ളത് അവരതിന്റെ അറ്റകുറ്റപ്പണികള് സൗജന്യമായി ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് ഒരു ഒരു മൂന്നുവർഷത്തിലോ നാല് വർഷത്തിലോ ഒരു തവണ ആ റോഡിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ടതാണ് ആ കമ്പനി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലൊരു അസിസ്റ്റന്റ് എൻജിനിയറിയുടെയോ അല്ലെങ്കിൽ ഒരു കലക്ടറയോ നേതൃത്ത്വത്തിൽ അതിനുവേണ്ടി ഒരു സംഘടന രൂപീകരിക്കുകയും ആ സംഘടനയുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് റോഡിന്റെ പോരായ്മകൾ കണ്ടെത്തി വിലയിരുത്തി അത് ചെയ്ത കോൺട്രാക്ടർക്ക് അതിന്റെ അറ്റകുറ്റപ്പണി നടത്താനുള്ള പെർമിഷൻ കൊടുക്കുകയും അഥവാ അയാൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് നിയമം വഴി അയ്യാൾക്ക് കിട്ടേണ്ട ശിക്ഷ നടപ്പാക്കിയും വരുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ പരമാവധി നമ്മൾ പബ്ലിക്ക് വാഹനങ്ങളെ ആശ്രയിക്കുകയാണെങ്കിൽ റോഡിലുള്ള തിരക്ക് നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നതാണ് കൂടുതൽ ജനങ്ങൾ അങ്ങനെ പോകും പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാൾ ആളുകൾ ആശ്രയിക്കുന്ന ട്രെയിൻ അതിന്റെ എണ്ണം കുറച്ചുകൂടി കൂട്ടേണ്ടതായിട്ടുണ്ട് ഐ ആർ സി ടി സി വഴി ബുക്ക് ചെയ്ത് ട്രെയിൻ യാത്ര നടത്തുന്നവർക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ആപ്പ് സൗകര്യങ്ങൾ കുറച്ചുംകൂടി പവർഫുൾ ആയിട്ടുള്ള കുറച്ചുംകൂടി സ്പീഡി ആയിട്ടുള്ള ആപ്പുകളുടെ അതിന്റെ അപ്ഡേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് ഗവൺമെന്റ് കൂടാതെ മുംബൈ കൊൽക്കത്ത പോലുള്ള ടൗണുകളിൽ ലോക്കൽ ട്രെയിൻസ് ആശ്രയിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവർ അതിലൊക്കെ തൂങ്ങിപ്പിടിച്ചാണ് യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അത് അതിന്റെ പ്രശ്നം പരിഹരിക്കാൻ എന്നവണ്ണം കൂടുതല് ട്രെയിൻ സർവീസ് സമയബന്ധിതമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുളള പ്രാരംഭ പ്രവർത്തനങ്ങളും ഗവൺമെന്റ് നടത്തേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ യാത്ര സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ വളവുകൾ നിവർത്തിയും കയറ്റം കുറച്ചും നല്ല ടാർ നടത്തിയും നമുക്ക് വാഹന അപകടങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും എല്ലാവരും ഗതാഗത സംവിധാനങ്ങളെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള ടാക്സ് അടയ്ക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെന്റിലേക്ക് ഓരോ ജനങ്ങളും നൽകുന്ന ടാക്സ് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ ഈ നാട്ടിലെ ഗവൺമെന്റുകൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് സാധാരണ ഉപയോഗിക്കുന്ന ഗതാഗത മാർഗ്ഗങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് കൂടുതൽ ഫലവർത്തായ പുതിയ ഏതെങ്കിലും ഗതാഗത മാർഗ്ഗങ്ങളുടെ സാധ്യത ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലാൾക്കാർ പാഴാക്കി കളയുന്നത് അവരുടെ സമയമാണ് അത് തന്നെയാണ് അവർക്ക് ഏറ്റവും വിലപ്പെട്ടത് അപ്പോൾ ഇപ്പോൾ എത്തുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിൽ അപകടങ്ങൾ കൂടാതെ എത്താൻ കഴിയുന്ന സ്പീഡ് ട്രാക്കുകൾ ഹൈ സ്പീഡ് റെയിൽവേ സൗകര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന കെ റയിലുള്ള പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടത്തി എത്രയും പെട്ടെന്ന് നമ്മുടെ സമയം പാഴാക്കാതെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇന്ത്യയിലെ ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്

നമുക്ക് ഗതാഗത മാർഗ്ഗങ്ങളിൽ നേരിടുന്ന വെല്ലുവിളികളുടെ ഒരു വലിയ പങ്കും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്